കേരളത്തിൽ കൃഷിക്കാരാണ് ഏറിയ പങ്കും ഉള്ളത് കാർഷിക എന്ത് കൃഷി ചെയ്ത് ചെയ്താലും കാലാവസ്ഥയും കൂടെ അനുകൂലമായെങ്കിൽ മാത്രമേ കൃഷിയിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ പണ്ടത്തെ കാലാവസ്ഥയല്ലല്ലോ ഇപ്പം ഇപ്പം കുറേ ആയിട്ട് കാലാവസ്ഥയിൽ ഒരുപാട് വ്യതിയാനങ്ങൾ വരുന്നതുകൊണ്ട് കൃഷി ഒരുപാടുപേരും നിർ മതിയാക്കുകയാണ് കൃഷിയിൽ കൃഷി എന്നുമെന്നും ഒരു ഇപ്പം ഇപ്പം കുറേ ആയിട്ട് കൃഷി ഒക്കെ ഒരുപാട് തകർന്നുപോയിട്ട് സ്ഥലം എല്ലായിടത്തും ഒരുവിധം എല്ലാം അതൊരു വികസിപ്പിക്കണമെങ്കിൽ അതുപോലെ ഉള്ള നമ്മൾക്ക് മറ്റുള്ള സഹായങ്ങളൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ അത് വികസനവും ഒരിതാക്കുകയുള്ളൂ ഞങ്ങൾ പിന്നെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഇവിടെ ഒരു ബിസിനസ്സ്കാർ അവർ ചന്ത കൊണ്ടുക്കൊടുത്ത് അവരുടെ കർഷകൻ്റെ ചന്തയെന്ന് പറയും ഒരു അവിടെ കൊണ്ടുക്കൊടുത്ത് അവർ വിൽക്കുന്നത് വിൽക്കും അവർക്കൊരു ബിസ്സിനസാകും അങ്ങനെയങ്ങ് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് നമുക്ക് അതൊരു സഹായം നമ്മുടെ കർഷകൻ്റെ ആയതുകൊണ്ട് അധികം വിഷമടിക്കാത്തതും ഒക്കെ ഉള്ള സംഭവങ്ങൾ ചന്തയിൽ കൊണ്ടുവന്ന് നമ്മുടെ കർഷകർ തന്നെയാണത് വിൽക്കുന്നതും അപ്പം അങ്ങനെ ഒക്കെ ഉള്ള സംഭവങ്ങളാണ് ഉള്ളത് വിൽക്കാൻ പറ്റുന്നത് ഒക്കെ ആണെങ്കിൽ ഞങ്ങളുടെ ആ കർഷകൻ്റെ ചന്തയിൽ അവർ വിൽക്കും

ആ കാർഷികം ഇപ്പോൾ ബുദ്ധിമുട്ടിൽ ഒക്കെ ഉള്ള കാലമല്ലേ കാലാവസ്ഥ ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ വന്നു അതുകൊണ്ടും കൃഷി ഒക്കെ ഒത്തിരി പിറകോട്ട് എങ്കിലും ഞങ്ങൾ കൃഷിയിൽ തന്നെ മുന്ന് മുന്നോട്ടു പോവുകയാണ് ഇതിപ്പോൾ കുറേ ഇപ്പോൾ മകൻ കൃഷിയിലോട്ട് കയറിയിട്ടുണ്ട് അത് ഒക്കെ കുറച്ചു കഴിഞ്ഞാൽ ആ കൃഷിയിൽ ഒക്കെ ഒത്തിരി അങ്ങനെ ഗവൺമെൻ്റിൽ നിന്ന് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ നമ്മൾ കൃഷിയിൽ മുന്നോട്ടു പോയാൽ രക്ഷയാവും പക്ഷേ അല്ലെങ്കിൽ കൃഷിയിൽ ഒത്തിരി ഒന്നും പഴയതുപോലെ ഒന്നും കിട്ടുകയില്ല ഞങ്ങൾക്ക് ഒത്തിരിയും കൃഷിയിൽ ഒത്തിരി ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇപ്പം കാലാവസ്ഥാവ്യതിയാനവും നമ്മൾ പറയുന്നതുപോലുള്ള ഇതും കിട്ടുകയില്ല മുഴുവനും വിഷത്തിൻ്റെ കാലം ആണല്ലോ നമ്മൾ ജൈവകൃഷി ഒക്കെ ചെയ്താൽ അത് പോലൊന്നും കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടിലാണ്